എന്ത് കാര്യത്തിനും സ്വയമേ മുന്നോട്ട് ഇറങ്ങുക എന്നുള്ള ഒരു രീതിയാണെനിക്ക് അത് തന്നെയാണ് എൻ്റെ ശക്തിയെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു കാര്യം കണ്ടുകഴിഞ്ഞാൽ അത് ആരോടെങ്കിലും ചോദിക്കുകയോ പറയുകയോ അങ്ങനെ എന്താണ് അതിൻ്റെ ഇത് നോക്കിയിട്ട് മറ്റുള്ളവരോട് കാത്തുനിൽക്കാണ്ട് നമ്മൾ തന്നെ സ്വയം ചെയ്യാന്നുള്ള ഒരു രീതിയാണ് ഞാന് അപ്പോൾ അതുകൊണ്ടുതന്നെ കുറേ അധികം നല്ല കാര്യങ്ങളെനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മള് വേറെ ആരെയെങ്കിലും കാത്ത് നിന്നിട്ട് ചെയ്യാൻ സമയം പോകും അവരുടെ ആശ്രയത്തിന് നിൽക്കരുത് നമ്മളെപ്പോഴും സെൽഫ് ആയിട്ടൊരു കാര്യം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അയിപ്രായം ആ ഒരു രീതിയില് പിന്നെ നമ്മള് നോക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരാളെ കാത്തുനിൽക്കുമ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കും നമുക്കിപ്പോൾ ഫ്രണ്ട്സിനു വേണ്ടി കുറേ കാര്യങ്ങള് ചെയ്യാം അതുപോലെ ആരും വേറെ ഇപ്പോൾ നമുക്ക് അറിയില്ലെങ്കിലും നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി വേറൊരാളുടെ ഹെല്പ് ചെയ്യുക അതിപ്പോൾ അയാൾ ആരാണെന്നോ എന്താണെന്നോ അയാള് എങ്ങനത്തെ ആളാണെന്നോ അതൊന്നും നോക്കാണ്ട് നമ്മള് സെൽഫായിട്ട് ചിന്തിക്കാണ്ട് മറ്റുള്ളവർക്കുകൂടി വേണ്ടി ചിന്തിക്കുക എന്നുള്ളൊരു നിലപാടാണ് എനിക്കുള്ളത് ബലഹീനതയെന്ന് പറയുമ്പോൾ അത് ഒരു ബലഹീനത കൂടിയാണ് എന്തിനും എടുത്ത് ചാടി എന്ത് കാര്യങ്ങളും കുറച്ച് ആവേശത്തോട് കൂടി ചെയ്യണ കാരണം കൊണ്ട് ചിലപ്പോൾ ചില സമയത്ത് നമുക്കത് നമ്മള് പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലേക്കായിരിക്കും ചെന്നവസാനിക്കുക ചിലപ്പോഴത് നമുക്കൊരു നെഗറ്റീവായിട്ട് സംഭവിക്കാം കാരണം എന്താണ് എന്ന് അന്വേഷിക്കാണ്ട് ചെയ്യണ സമയത്ത് നമ്മൾ അത് എടുത്തുച്ചാട്ടം കൂടുതലാണ് അപ്പോൾ അത് നമ്മളുദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്കല്ല അത് എത്തുക